നിങ്ങളുടെ പ്രദേശത്തെ ഗതാഗത രീതികളെ മെച്ചപ്പെടുത്താനായിട്ട് ചെയ്യേണ്ടവ ഈ വഴി ഒരു ബസ്സ് വിടുക അതും സമയം ക്രമീകരിച്ചുതന്നെ വിടുക പിന്നെ റോഡിൻ്റെ പണി വേഗം തീർക്കുക ആ റോഡുപണി വേഗം തീർന്നാൽപ്പിന്നെ പകുതി ആശ്വാസമാവുകയും ഈ വഴി പ്രേദേശത്തോട്ടുള്ള വഴി പോയി കറങ്ങി അപ്പപ്പാറ വഴി കറങ്ങി പോകുന്നതായിരിക്കും കൂടുതൽ സൗകര്യമെന്ന് ഞാൻ ചിന്തിക്കുന്നു അപ്പം യാത്ര തടസ്സം ഉണ്ടാകുന്നില്ല ട്രാഫിക്ക് ജാമുകൾ പോലുള്ള പ്രശ്നങ്ങളുണ്ടാവില്ല ഈ വഴിയൊരൂ ആഹ് ട്രെയിന് വച്ചു കയിഞ്ഞാൽ ഈ റൂട്ട് കർണ്ണാടകയിലേക്കൊരു ട്രെയിന് വച്ചു കയിഞ്ഞാൽ അതു കൂടുതലും യാത്ര സൗകര്യം എളുപ്പമാക്കിത്തരും വഴിയൊരു ലോങ്ങ് ട്രിപ്പ് ബസ്സൊക്കെ ഓടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സൗകര്യപ്രദമുള്ളതായിരിക്കും